നല്ല നല്ല ചിത്രങ്ങൾ പകർത്തുന്നതിനായി ഞാൻ കൂടുതലായി പോകാറുള്ളത് വയലുകൾ

തടാകം മലനിരകൾ ഈ പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് പോകാറുള്ളത് അതിൽ തന്നെ വയലുകളിൽ പോകുകയാണെങ്കിൽ പലതരം പക്ഷികൾ പിന്നെ കർഷകൻ അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതും നദികളിലാണെങ്കിൽ പലതരം പക്ഷികൾ മീനുകളെ വേട്ടയാടുന്നതും മലനിരകളിലാണെങ്കിൽ പ്രകൃതിരമണീയമായ ചിത്രങ്ങൾ ലഭിക്കുന്നതിനൊക്കെ പ്രയോജനം ഉണ്ട്